ഹലോ പൂന്താനം പാക്കേജ് ആ പറഞ്ഞുകൊള്ളൂ ചേട്ടാ അതേ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നത്തേക്കായിരുന്നു ചേട്ടാ യാത്ര ഉദ്ദേശിക്കുന്നത് ഓ എസ്റ്റിമേറ്റ് ഡേറ്റൊന്ന് പറയാമോ ഓക്കെ ഓക്കെ ഓക്കെ എത്ര പേര് കാണും ആ ഓക്കെ ഓക്കെ ഓക്കെ ഹാ ഹാ എത്ര ദിവസത്തെ ട്രിപ്പായിരുന്നു പ്ലാൻ ചെയുന്നത് ഓക്കെ നമ്മള് വൺ ഡേ തൊട്ട് ഫൈവ് ഡേ പാക്കേജ് വരെ കൊടുക്കുന്നുണ്ട് അപ്പം സാര് അതില് ഏതാണുദ്ദേശിക്കുന്നത് ഓക്കെ മൂന്ന് ഓക്കെ മൂന്ന് ദിവസം നമ്മള് തന്നെ അക്കോമഡേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം അക്കോമഡേഷനും കൂടെയായിട്ടല്ലെ ഉദ്ദേശിക്കുന്നത് ഓ ഓക്കെ ഓക്കെ ഓക്കെ അപ്പം നമ്മുടെ ഉണ്ടുണ്ടുണ്ട് നമുക്കുതന്നെ ഹോട്ടലുമുണ്ട് ഞാൻ ചേട്ടന് വാട്സപ്പില് അതിൻ്റെ ഡീറ്റൈൽസ് സെൻഡ് ചെയ്യാം അതിപ്പോള് എനിക്ക് ചേട്ടന് വണ്ടിയില് എന്തെങ്കിലും പ്രെഫറൻസുണ്ടോ അത് നിങ്ങള്ക്ക് ചൂസ് ചെയ്യാം നമുക്ക് രണ്ടും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ട്രാവലറാണെങ്കിൽ അങ്ങനെ അല്ലെങ്കില് ബസ്സാണെങ്കില് അങ്ങനെ അപ്പം ബസ് വരുമ്പോള് അതനുസരിച്ച് എക്സ്പെൻസ് കൂടും ആ കൂടും കൂടും ബസ്സിലാണെങ്കില് നമുക്കൊരു അറുപത് പേര് മാക്സിമം കയറാം മതി മതി മതി ചേട്ടൻ ത്രീ ഡേ പാക്കേജല്ലേ നോക്കുന്നത് ഓക്കെ ഓക്കെ അപ്പോള് ചേട്ടാ അതിൻ്റെ ഞാൻ ബാക്കി ഡീറ്റൈൽസിടാം അതിൻ്റെ റേറ്റെന്ന് പറയുന്നത് നമ്മള് രണ്ട് റേറ്റുണ്ട് ഒന്ന് ഫൈവ് തൗസൻഡിന്റെ ഒരു പാക്കേജുണ്ട് പിന്നെ ടെൻ തൗസൻഡിന്റെ ഒരു പാക്കേജുമുണ്ട്

ഇപ്പോള് ടെൻ തൗസൻറ്റെന്ന് പറയുന്നത് നമ്മള് പോകുന്ന സ്ഥലങ്ങളുടെ എണ്ണം കൂടുതലാണ് നമ്മുടെ ടൈം നമുക്ക് നമുക്കിത്തിരിയും കൂടെ സ്ഥലങ്ങള് പോകാൻ പറ്റും പിന്നെ ടെൻ തൗസൻറ്റിതില് നമ്മള് ട്രെക്കിങ്ങ് വരുന്നുണ്ട് മൂന്നാർ കൊലുക്കുമലയൊക്കെ നമ്മള് കയറുന്നുണ്ട് അതിൻ്റെ ഡീറ്റൈൽസ് ഞാൻ ചേട്ടൻ്റെ വാട്സപ്പിലിട്ടു തരാം അത് നമുക്ക് ഡീറ്റെയിൽസൊക്കെ നോക്കിയിട്ട് നമുക്ക് അതനുസരിച്ചുളള കാര്യം ചെയ്യാം ചേട്ടനത് വാട്സാപ്പില് നോക്കിക്കോളൂ നോക്കിയിട്ട് നമുക്കതിൻ്റെ എല്ലാം തന്നെ ഫുഡ് പ്രെഫറൻസും റെസ്റ്റോറൻറ്റ് പ്രെഫറൻസും താമസിക്കുന്നതിൻ്റെ ഇതും റൂമും നമുക്കെല്ലാം നോക്കി സെലക്ട് ചെയ്തിട്ട് ഇഷ്ടമുള്ളത് ചേട്ടൻ എന്റെയടുത്ത് പറഞ്ഞാല് മതി അപ്പം നമുക്ക് അഡ്വാൻസ് വരുന്നുണ്ട് പ്രീ ബുക്കിങ്ങായിട്ട് അഡ്വാൻസ് നമ്മളൊരു തൗസൻഡ് റുപ്പീസ് കാരണം ഇപ്പം ഇപ്പം നല്ല തിരക്കുളള സമയമാണല്ലോ അപ്പോള് നമ്മള് പ്രീ ബുക്കിങ്ങോരു പാക്കേജ് അനുസരിച്ചാണ് അപ്പോള് ചേട്ടൻ്റെ പാക്കേജ് നോക്കിയിട്ട് എൻ്റെയടുത്ത് പറയൂ ഫൈവ് തൗസൻഡ് അല്ല ഫൈവ് തൗസൻഡാണെങ്കില് നമ്മള് ഉദേശിക്കുന്നത് ഒരു തൗസൻഡ് ആയിരം രൂപയെങ്കിലും നമ്മളാദ്യമേ പ്രീ ബുക്ക് ചെയ്യുവാനായിട്ട് ടെൻ തൗസൻഡിൻ്റെയാണെങ്കില് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ ചെയ്യണം ചെയ്യണം അതെന്താണെന്നുവെച്ചാല് ചേട്ടാ നമ്മളിപ്പം വണ്ടിയൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് ഇൻ കേസ് ലാസ്റ്റ് നിമിഷം നിങ്ങളൊഴിയുകയാണെങ്കില് നമുക്കത്രയും നഷ്ടമാണ് ചേട്ടൻ്റെ സ്ഥലം എവിടെയായിട്ടായിരുന്നു കുട്ടിക്കാനം